ഹലോ ആ ഞാൻ മുമ്പേ വിളിച്ചായിരുന്നല്ലോ മുമ്പ് ഫോൺ എടുത്തില്ല അല്ലേ ഞാൻ ആ ഞാൻ വിളിച്ചതേ നിങ്ങൾ നമ്മൾ ഒരു പുതിയ എൽ ഐ സി പോളിസി നല്ല ഒരെണ്ണം വന്നിട്ടുണ്ടേ ഹെൽത്തിൻ്റെ ഉണ്ട് ലൈഫ് ഇൻഷുറൻസിൻ്റെ ഉണ്ട് ഹെൽത്തിൻ്റെ ഒരെണ്ണം എടുക്കാനാണെങ്കിൽ നമുക്ക് മെഡിക്കൽ ആയിട്ട് നമുക്ക് ഹോസ്പിറ്റൽ കേസ് എന്തിനും നമുക്ക് ഒരു രൂപ പോലും കൊടുക്കാതെ നമുക്ക് ഏത് അഞ്ച് പേർക്ക് ഒരു കുടുംബത്തിലെ അഞ്ച് പേർക്ക് നമുക്ക് ഇൻഷുറൻസ് ചെയ്യാം അതിൻ്റെ ഇതെന്ന് ചോദിച്ചാൽ ഏത് ഹോസ്പിറ്റൽ എന്ത് അസുഖത്തിന് വേണമെങ്കിലും നമുക്ക് കിട്ടുമേ ആ നല്ല ഒരിത് പുതിയതായിട്ട് വന്നതാണ് നമുക്ക് ഒരു രൂപ പോലും കൊടുക്കേണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒരെണ്ണം ആ അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ലൈഫ് ഇൻഷുറൻസ് നിങ്ങളുടെ ഒരെണ്ണം ഉണ്ട് നിങ്ങളുടെ രണ്ടെണ്ണം അത് ലാപ്സ് ആയി കിടക്കുവല്ലേ അത് വേ അത് പുതുക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഇപ്പം ചിലപ്പോൾ ഈ ഇതിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ ചിലപ്പോൾ ഇത്തിരി ഇളവ് ചെയ്തുള്ള ഇത് കാണും അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഇൻട്രസ്റ്റിൻ്റെ ഇളവ് ചെയ്യുന്ന സമയത്ത് തന്നെ കാശ് ഉണ്ടെങ്കിൽ നമുക്ക് ആ പതിനായിരത്തിന് വേണമെങ്കിൽ പുതുക്കി എടുക്കാം പുതുക്കി എടുത്ത് ഇപ്പോൾ ഇത്ര നാളായില്ലേ ആ ആ ആ പുതുക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് ഇപ്പോൾ ഇനി എത്ര ഒന്നോ രണ്ടോ വർഷം കൂടെ അല്ലേ ഉള്ളൂ ആ രണ്ട് വർഷം കൊണ്ട് വേണമെങ്കിൽ അത് മച്യൂർ ആവുകയും ചെയ്യും ഇപ്പോൾ ഒരു പോ പോളിസി തുടങ്ങുവാണെങ്കിൽ നമുക്ക് അപ്പോൾ ആ രണ്ട് വർഷത്തിൻ്റെ ഏജ് ആവുമ്പോൾ രണ്ട് വർഷം കഴിയുകയും ചെയ്യും നമുക്ക് അന്ന് തുടങ്ങുമ്പോൾ വെറുതെ രണ്ട് വർഷം പിന്നെയും പോവില്ലേ ഇപ്പോഴേ ഒരെണ്ണം തുടങ്ങുവാണെങ്കിൽ നമുക്ക് അപ്പോഴത്തേനും രണ്ട് വർഷവും ആവും അങ്ങനെ അങ്ങനെയാണെങ്കിൽ നോക്കുന്നെങ്കിൽ നോക്ക് ആ പുതുക്കിയിട്ട് ഒരെണ്ണം എടുക്കാൻ നോക്ക് അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ ഒരെണ്ണം ഹെൽത്ത് ഇൻഷുറൻസ് എടുക്ക് ഇപ്പോൾ എല്ലാവർക്കും രോഗങ്ങളല്ലേന്നേ എല്ലാവർക്കും രോഗങ്ങളായിട്ട് കിടക്കുന്ന നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ എത്ര രൂപ കൊടുക്കണം ആ അന്നേരം അപ്പോൾ നമ്മൾ എടുക്കാം അപ്പോൾ ഞാൻ എങ്ങനെ നാളെ വരണോ നാളെ വന്നാൽ നമുക്കത് ഒരെണ്ണം എടുക്കാം ഹെൽത്തിൻ്റെ ഒരെണ്ണം നോക്ക് ഞാൻ എല്ലാ ഡീറ്റെയിലും പറയാം

ആ ഹെൽത്തിൻ്റെ ഏതായാലും ഞാൻ എല്ലാ ഡീറ്റെയിലും പറയാം അതിൻ്റെ ഇഷ് ഉണ്ടെങ്കിൽ ഒരെണ്ണം നോക്ക് അത് നല്ലതാണ് ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും നല്ല ഒരു ഇതാണ് ഹെൽത്ത് ഇൻഷുറൻസ് പിന്നെ മറ്റേ ഒരെണ്ണം കൂടെ എടുക്ക് അത് ഇപ്പം നിങ്ങൾക്ക് ഇനി ഒന്നും ഇല്ല എല്ലാം ഒരെണ്ണം തീർന്നില്ലേ പിന്നെ ഇനി ഇപ്പോൾ ഒരെണ്ണം ലാപ്സ് ആയി കിടക്കുന്നതുകൊണ്ട് ഒരെണ്ണം എടുക്ക് എന്തായാലും നമുക്ക് ഒരു ഇൻഷുറൻസ് വേണ്ടേന്നേ അങ്ങ് അടഞ്ഞ് പോവും ആ എന്നാൽ ഞാൻ നാളെ വരാം കേട്ടോ ശരി എന്നാൽ ഓക്കെ ഓക്കെ